മറ്റു ഗ്രഹങ്ങളിൽ ബാഹ്യ ജീവൻ അല്ലെങ്കിൽ വേറൊരു ജീവൻ ഉണ്ടോയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോയെന്നു ചോദിച്ചാൽ ആദ്യമൊക്കെ പണ്ടൊക്കെ കാർട്ടൂണൊക്കെ കാണുമ്പോൾ വിചാരിക്കുമായിരുന്നു അധികം സയൻസും കാര്യങ്ങളൊന്നും അറിയാത്ത കാലത്ത് വിചാരിക്കുമായിരുന്നു ഇതേപോലെയൊക്കാൾക്കാരുണ്ട് ഇവരെയൊക്കെ സ്പേസ് ഷിപ്പിൽ വന്നിറങ്ങുമ്പോൾ വളരെ കൗതുകം തോന്നിയിരുന്നൊരു കാര്യമായിരുന്നു അതു കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി

പാലസ് ഓ പാലക്കൊക്കെ ഓരോ ഇടത്ത് ഓരോ യുട്യൂബ് വിഡിയോസിലും ഒക്കെ കാണും ഏലിയൻസിൻ്റെ പ്രസൻസ് കണ്ടെത്തി പക്ഷേ യു എഫ് ഓൻ്റെ പ്രസൻസ് കണ്ടെത്തി ചിലരിപ്പോൾ ആകാശത്തു കൂടി രാത്രി യു എഫ് ഓ പോകുന്നതു കണ്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ വെറും ഓരോ ഫേയ്ക്ക് ന്യൂസാണെന്ന് ആണ് പലയിടത്തും പറയുന്നത് അതു കാരണം നിങ്ങളതിനെ പറ്റിയൊക്കെ പുറത്തൊരു എക്സ്ട്രാ ലൈഫുണ്ടോയെന്നു ചോദിച്ചാൽ കരുതുന്നുണ്ടോയെന്നു ചോദിച്ചാൽ വേറെ പ്രൂഫ് ഒന്നുമില്ലാത്തതു കൊണ്ട് ഇല്ല എന്നേ പറയാൻ പറ്റുള്ളു കാരണം നമുക്ക് അറിയാത്തൊരു കാര്യത്തിനെ പറ്റിയിട്ട് ഉണ്ടോ ഇല്ലയെന്നു പറയുന്നത് ശരിയല്ല അതു കാരണം ഉണ്ടോയെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ അതിനെപ്പറ്റിയിട്ടുള്ള ആകർഷകമായിട്ടുള്ള തിയറീസ് എന്തെങ്കിലും ഉണ്ടോയെന്നു ചോദിച്ചാൽ എനിക്കാ ഒരു ഭാഗത്തേക്ക് വലിയ ഐഡിയയില്ല തിയറീസ് ഈ യുബിക്കേറ്റസ് തിയറീസെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അതിനെ പറ്റിയിട്ട് വലിയ അറിവില്ല കാരണം പിന്നെ അതിനെ പറ്റിയൊന്നും പ്രൂവ് ചെയ്യാത്ത കാരണം അവർ പ്രൂവ് ചെയ്യാത്തൊരു കാര്യത്തിനെ കൊ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ കാരണം തിയറീസ് ആർ മേയ്ൻലി ഒരു ഇൻ്റലിജൻറ്റ് ഹൈപ്പൊത്തെസിസ് അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്ന ടൈപ്പൊരു കാര്യമാണല്ലോ അപ്പോൾ അതിനെ പറ്റിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്നു ചോദിച്ചാൽ തിയറീസ് ഉണ്ടോയെന്നു ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ ഇപ്പോൾ ഈ ചോദിച്ച ചില കാര്യത്തിന്